ഹലോ ഫ്ലിപ്ക്കാട്ട് കസ്റ്റമർ സർവീസല്ലേ ഹലോ എനിക്ക് ഞാനൊരു മൊബൈൽ ഫോൺ ഓർഡർ ചെയ്തായിരുന്നു പക്ഷേങ്കിൽ അത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാണ് അത് വേണ്ട എന്ന് പറയാന്നെ മാറിപ്പോയി സത്യം പറഞ്ഞാൽ എൻ്റെ മൊബൈലിൻ്റെ ഇത് ഞാൻ ഉദ്ദേശിച്ച മൊബൈലല്ല വാങ്ങിച്ചെ നിങ്ങൾ ഡെലിവറി ചെയ്യുന്നതിന് മുൻപ് അതൊന്ന് ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റുമോ ഓർഡർ ക്യാൻസൽ ചെയ്തിട്ട് എനിക്ക് പുതിയൊരു വേറൊരു സ്മാർട്ട് ഫോൺ എടുക്കാനായിട്ടാണ് അതിന് വേറെ എന്തെങ്കിലും എക്സ് എക്സ്ട്രാ ഫീസാകുമോ അതോ വേറേ എന്തെങ്കിലും അങ്ങനെ ചെയ്യാനുണ്ടോ അത് നിങ്ങള് ഓർഡർ പ്രോസസ്സ് ചെയ്യുന്നതിന് മുൻപ് ഇത് ക്യാൻസൽ ചെയ്യാനായിട്ട് വേണ്ടിയായിരുന്നു വിളിച്ചതേ അതിന് വേറെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് ഞാൻ ചെയ്യാം ഓക്കെ